ഞങ്ങൾ അഗസ്ത്യ വനത്തിനടുത്തായിട്ടാണ് താമസിക്കുന്നത് പിന്നവിടെ വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ട് പിന്നെ കാപ്പട ആന പാര്ക്ക് ഉണ്ട് അവിടെ ആള്ക്കാർ വരാറുണ്ട് വിദേശികൾ വരാറുണ്ട് പിന്നെ നെയ്യാര് ഡാം തൊട്ടടുത്താണ് അവിടെയും അങ്ങനെ തന്നെ ആള്ക്കാരൊക്കെ വരുന്നതാണ് പിന്നെ അരുവിക്കര ഡാമുണ്ട് ഇതെല്ലാം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്തായിട്ടാണ് വരണത് വിനോദസഞ്ചാരികള്ക്കു പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് കാപ്പാട ആന പാര്ക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആനയുടെ പുറത്തു കയറാനും പിന്നെ യാത്ര ചെയ്യാനുമൊക്കെ ഉള്ള അവസരങ്ങളുണ്ട് അഗസ്ത്യവനത്തിലും അങ്ങനെ തന്നെ അവരൊരു ദെ ദിവസം വെച്ചേക്കും ആ സമയത്തു നമുക്കവിടെ കയറി എല്ലായിടവും കാണാനുള്ള അവസരങ്ങള് ഒരുക്കും പിന്നെ പിന്നെ ലയണ് സഫാരി പാര്ക്ക് നെയ്യാർ ഡാമിൽ ഉണ്ട് അവിടെ ഇപ്പോൾ സിംഹങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്കു തോന്നണത് കാരണം ഉണ്ടായിരുന്നപ്പോൾ അവിടെ നമുക്ക് പോകാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവിടെ പോകുകയും ഇതിനെയൊക്കെ കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു